കേരളത്തിലെ വാർത്താ മാധ്യമങ്ങൾ ഇന്ന് ഒരുപാട് കാര്യങ്ങളിൽ കാര്യങ്ങളെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കേരളത്തിൽ കാണുന്ന എല്ലാ എല്ലാ തരത്തിലുള്ള ഇപ്പോൾ ഏതൊരു സംഭവം നടന്നാലും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകളും ന്യൂനപക്ഷ മേഖല ന്യൂനപക്ഷങ്ങളുമായും ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് പൊതുവെ വിദ്യാഭ്യാസം ഉള്ള ഒരു വിഭാഗമാണ് അത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ന്യൂനപക്ഷ മേഖല എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസത്തിലാണെങ്കിലും അതുപോലെ അവരുടെ ഒരു ഇപ്പോൾ മറ്റുള്ളവരെപ്പോലെത്തന്നെ മുന്നോട്ട് ഏതൊരു കാര്യത്തിലും മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് സർക്കാർ തന്നെ ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങൾ അവർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ എന്തൊരു ഏതൊരു പ്രശ്നങ്ങളും സോഷ്യൽ മീഡിയ വഴി പല പല സ്ഥലങ്ങളിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർക്കൊരുപാട് കാര്യങ്ങൾ മെച്ചപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെത്തന്നെയാണ് സ്ത്രീകളും ഇപ്പോൾ സ്ത്രീകളുടെ ഇപ്പോൾ വിദ്യാഭ്യാസമാണെങ്കിലും അതുപോലെ ജോലി സാഹചര്യങ്ങൾ ആണെങ്കിലും അതുപോലെ സ്ത്രീകളുടെ വീട്ടുകാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ കല്ല്യാണം കഴിച്ച് വിട്ട വീട്ടിലെ ഉള്ള പ്രതിസന്ധികളാണെങ്കിലും ഏതൊരു കാര്യവും ചെറിയ എന്തെങ്കിലും ഒരു ഹിൻ്റ് കിട്ടിയാൽ അത് വാർത്താ മാധ്യമങ്ങളിൽ പടർന്ന് പന്തലിക്കുന്നു അതുകൊണ്ടുതന്നെ ഏതൊരു സ്ത്രീയുടെയും പ്രശ്നങ്ങളും അത് പരിഹരിക്കാനുള്ള ഒരു മാർഗ്ഗവും സോഷ്യൽ മീഡിയ വഴി നമുക്ക് നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുന്നുണ്ട് കേരളത്തിലെ സ്ത്രീകൾ മൂല്യവത്തായ അല്ലെങ്കിൽ അവരുടെ ഇപ്പോൾ സ്ത്രീ സ്ത്രീധന പ്രശ്നങ്ങളാണെങ്കിലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിരവധി ഇപ്പോൾ ഒരുപാട് മരണങ്ങളുണ്ടായിട്ടുണ്ട് സ്ത്രീകളുടെ ഈ സ്ത്രീധനം സ്ത്രീധനം മുൻ നിർത്തി തന്നെ അതുകൊണ്ടുതന്നെ വാർത്ത മാധ്യമങ്ങളിൽ പടരുന്നതുകൊണ്ടുതന്നെ അത് വാങ്ങാൻ പോലും മടിക്കാൻ അല്ലെങ്കിൽ വാങ്ങാൻ പേടിയുള്ള ചില പുരുഷന്മാരെ ഇപ്പോൾ കല്ല്യാണം കഴിക്കുമ്പോൾ ഇപ്പോൾ പുരുഷന്മാരുടെ വീട്ടുകാരെ ഭയക്കുന്നുണ്ട് അത് ഈ വാർത്ത മാധ്യമങ്ങളിലുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുതന്നെയാണ്